ഹലോ ദിയ ബൂട്ടിക്ക് അല്ലേ ആ ഇത് ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വിളിക്കുന്നതാണ് അതെ അതെ അതെ ഞാൻ വിളിച്ചതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഓൺലൈൻ ഷോപ്പിങ്ങ് കാർട്ടിൽ ഞാൻ കുറേ സാധനങ്ങൾ ചേർത്തിട്ടുണ്ട് കുറേ ഡ്രെസ്സ് ഡ്രെസുകൾ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിപ്പം വാങ്ങാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഇല്ല ആ കുറച്ചൊരു ടൈറ്റാണ് അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അതെ അതെ ആ അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചേർത്തത് അപ്പോൾ അത് വാങ്ങാനുള്ള പൈസ ഇപ്പം എൻ്റെ കയ്യിലില്ല അതിപ്പം വാങ്ങണ്ടായെന്നാണ് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുള്ളത് അപ്പം അതെൻ്റ ആ എൻ്റെ ഫോണിൽ നിന്ന് അതെനിക്ക് പിന്നെ കളയാൻ പറ്റുന്നില്ല നീക്കം ചെയ്യാൻ പറ്റുന്നില്ല ആ അതെ ഫോണിൽനിന്ന് ചെയ്യാൻ പറ്റുന്നില്ല അത് നിങ്ങൾ ഒന്ന് നിങ്ങൾ നിങ്ങളെ കാർട്ടിലോട്ട് പോയിട്ട് എനിക്ക് വേണ്ടാത്ത ഞാൻ പറയുന്നതെല്ലാം ഒന്ന് നീക്കം ചെയ്ത് തരൂല്ലേ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ അവിടെ വരുന്ന സ്ഥിരമായിട്ട് വരുന്ന ഒരാൾ തന്നെയാ വരാറും ഉണ്ട് ഓൺലൈൻ ആയിട്ട് വാങ്ങാറും ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം അതിപ്പം എൻ്റെ ഫോണിൽനിന്ന് എനിക്ക് നീക്കം ചെയ്യാൻ പറ്റുന്നില്ല ആ അത് ഇപ്പം തൽക്കാലം പൈസേൻ്റെ ഒരു കുറച്ച് ഒരു ടൈറ്റുള്ളതുകൊണ്ടാണ് ഞാൻ അത് വേണ്ടായെന്ന് വെച്ചത് അതെ ആ അപ്പം അതൊന്ന് നീക്കം ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ വല്യ ഉപകാരം ആയിരിക്കുവേനു ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ അതിന് നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതെ ആ അതിപ്പം കുറച്ചൊരു പൈസക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത് ആ ഞാൻ ആ ഞാൻ അവിടെ സ്ഥിരമായിട്ട് വരുന്ന ആള് തന്നെയാ സ്ഥിരമായിട്ട് വരാറും ഉണ്ട് പിന്നെ ഇതിങ്ങനെ ഓൺലൈൻ ആയിട്ട് ഷോപ്പ് ചെയ്യാറും ഉണ്ട് ആ അപ്പോൾ നിങ്ങൾ അത് ഇനി ഇനിയും പുതിയ പുതിയ എല്ലാം മോഡലുകളും വരുന്നതനുസരിച്ചിട്ട് ഈ കാർട്ട് ഫോണിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് പോലെ സെലക്ട് ചെയ്ത് മേടിക്കാം അതെ വളരെ സന്തോഷം ആ ആയിക്കോട്ടെ അങ്ങനെ ആ അങ്ങനെ അങ്ങനെ ചെയ്താൽ മതി അതൊന്ന് നീക്കം ചെയ്ത് തന്നാൽ മതി ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ശരി ശരി എന്നാൽ